ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ മതങ്ങളും അധിവസിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പം ഇന്ത്യയിലെ രാഷ്ട്രീയം എന്ന് രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഓരോ പാർ ഒരു പാർട്ടിക്ക് ഇപ്പോൾ മറ്റൊരു പാർട്ടിയെ കണ്ടുകൂട ആ ഒരു അവസ്ഥയിലാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യവും പാ സ്ഥിതിയും എല്ലാം നിലനിൽക്കുന്നത് അപ്പോൾ ഇത്തരം രാഷ്ട്രീയക്കാർ അവരുടെ രാഷ്ട്രീയ ജീവിത തന്ത്രത്തിൽ പ്രധാന ആയുധമായിട്ട് എടുക്കുന്ന ഒരു വിഷയമാണ് മതത്തെ മുതലെടുക്കുക എന്നുപറഞ്ഞത് കാരണം കാരണം ഒന്നിലധികം മതങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുന്ന ചരിത്രങ്ങൾ ത ചരിത്രകാലം തൊട്ടേ പല മതങ്ങളും പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യം ആണ് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞത് അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നുപറഞ്ഞാൽ പല പാർട്ടിക്കാരായിരിക്കും പല വിശ്വാസത്തിലുള്ളവരായിരിക്കും അപ്പോൾ അവരെയൊക്കെ തമ്മിൽ ഭിന്നിപ്പിച്ച് തങ്ങളുടെ പാർട്ടിയിലേക്ക് ചേർക്കുക അല്ലെങ്കിൽ തങ്ങളുടെ ആളായി കൂടെ കൂട്ടുക ആ ഒരു തന്ത്രം എല്ലാ രാഷ്ട്രീയക്കാരും ഇന്ത്യയിൽ എടുക്കുന്നുണ്ട് പൊതുവേ കാരണം ഇന്ത്യയിൽ മതത്തിന്റെ പേരിൽ വളരെയധികം സംഘർഷങ്ങളും യുദ്ധങ്ങളും കൂട്ടക്കൊലകളൊക്കെ നടന്നൊരു സംഭവം നമുക്ക് ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കാരണം അത്രയ്ക്കും മതത്തെ അവർ ചൂഷണം ചെയ്തു എന്ന് തന്നെ പറയാം അപ്പോൾ ഇന്ത്യയിൽ മതത്തെ ചൂഷണം ചെയ്തത് ഒട്ടും കുറവല്ല അപ്പോൾ ഇന്ത്യയിലെ സാഹചര്യമനുസരിച്ച് അനുസരിച്ചാണെങ്കിൽ അവർ മതത്തെ നല്ലവണ്ണം ഉപയോഗിക്കുന്നുണ്ട്